സ്റ്റാമ്പ്കളോ നാണയങ്ങളോ കല്ലുകളോ ശേഖരിക്കുന്നവർക്കായുള്ള ക്ലബ്ബിലോ സംഘടനയിലോ എപ്പോഴെങ്കിലും ചേർന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ ചേർന്നിട്ടില്ല പക്ഷെ സ്റ്റാമ്പ് ശേഖരണം ഒക്കെ ഉണ്ടായിരുന്നു അത് നാണയങ്ങളൊന്നും ശേഖരിച്ചിട്ടില്ല കല്ലുകളും ശേഖരിച്ചിട്ടില്ല ശേഖരിക്കുന്നവർക്കായിട്ടുള്ള ഒരു ക്ലബ്ബിലൊന്നും ഇതുവരെ ഞങ്ങൾ സംഘടനകളിലോ ക്ലബ്ബ്കളിലോ ഇതുവരെ ഒരിക്കലും ചേരാൻ സാധിച്ചിട്ടില്ല അതേപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങളൊക്കെ അന്നത്തെ കാലത്തൊന്നും സ്റ്റാമ്പ് ശേഖരണമൊക്കെ ഉണ്ടായിരുന്നു ബാക്കി കാര്യങ്ങളൊന്നുമങ്ങനെ നമുക്ക് സാധിച്ചിട്ടില്ല അതാ ചെറുപ്രായത്തിൽ തന്നെ ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങൾ വളർത്തിയെടുക്കുന്നത് പോലിരിക്കും അന്നൊക്കെ ചെറുപ്രായത്തിങ്ങളിൽ സ്റ്റാമ്പ് ശേഖരിക്കുന്നത് നല്ലാ നാണയം ശേഖരിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല കല്ല് ശേഖരണം നല്ല നല്ല കല്ലുകൾ കാണുമ്പം ശേഖരിക്കണം എന്നൊക്കെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ ഒരു പരിധിവരെ അന്ന് ഞങ്ങളുടെ കാലങ്ങളിൽ ഞങ്ങൾ അറുപതിലുണ്ടായതാണ് അപ്പം ആ ഞാൻ അറുപതിലുണ്ടായത് കൊണ്ട് അന്ന് മുതൽ അന്നൊക്കെ വിദ്യാഭ്യാസം തന്നെ വളരെ കുറവ് ആയിരുന്നു സ്കൂളിൽ പോവുന്നു പഠിപ്പിക്കുന്നത് പഠിക്കുന്നു എന്നുള്ളതല്ലാതെ ഇങ്ങനെയുള്ള സ്റ്റാമ്പ് ശേഖരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അന്ന് വലിയ പ്രാബല്യത്തിലില്ലായിരുന്നു ഉണ്ടായിരുന്നായിരിക്കാം പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം അന്നൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്നിപ്പത്തോൾ തോന്നുന്നുണ്ട് പക്ഷെ അന്നൊക്കെ പറഞ്ഞ് തരാനോ ഒന്നും ആൾക്കാരില്ലായിരുന്നതുകൊണ്ട് ഇനിയുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും സ്കൂളിലും ഒക്കെ ഇങ്ങനെ സ്റ്റാമ്പ് ശേഖരണവും കല്ല് ശേഖരണവും ഒക്കെ നടത്തി അതൊക്കെ ചെയ്യണമെന്ന് പിള്ളേരോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുത്താൽ മാത്രമേ ഇതൊക്കെ പിള്ളേർക്ക് മനസ്സിലാവുള്ളൂ ഞങ്ങളുടെ കാലമല്ലല്ലോ ഇപ്പം ഇപ്പം പറയാതെതന്നെ പിള്ളേർ പഠിക്കുന്ന ഒരു കാലമാണ് എങ്കിലും പ്രോത്സാഹനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും വളരെ നല്ലതാണ് അങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു സംഘടനയിലോ ഒരു ക്ലബ്ബിലോ ഒന്നും ഒരിക്കലും ഞാൻ ചേരാൻ ഇട വന്നിട്ടില്ല ചേർന്നിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന് ഇപ്പം തോന്നുന്നുണ്ട് പക്ഷെ ചേരാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല അന്നൊന്നും ക്ലബ്ബ്കളൊക്കെ ഉണ്ടായിരുന്നായിരിക്കും ഞങ്ങൾക്കവത്തേപ്പറ്റി കൂടുതൽ വിവരങ്ങളില്ലായിരുന്നതിനാൽ ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇനിയുള്ള കുഞ്ഞുങ്ങൾക്കാണങ്കിലും എല്ലാ കാര്യങ്ങളും നിങ്ങൾ വേണ്ടുന്ന വിധത്തിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണെനിക്ക് പറയാനുള്ളത് എല്ലാ വിധ ഭാവുകങ്ങളും വിജയങ്ങളും എല്ലാവർക്കും നേരുന്നു ഓക്കെ